ഇന്നത്തെ കാലത്ത് മലയാള ഭാഷ ഒരുപാട് വെല്ലുവിളി നേരിടുന്നുണ്ട് ഇന്നത്തെ ഇപ്പോഴത്തെ കാലത്ത് മലയാള ഭാഷ എവിടെയാണ് നിലകൊള്ളുന്നു എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ മലബാർ മലയാളത്തിന്റെ ഉറവിടം ഏതാണെന്ന് ചോദിച്ചാലും കൂടി നമ്മൾക്ക് അറിയില്ല സാധാരണ നിത്യ ജീവിതത്തിൽ തന്നെ നമ്മളെ നമ്മൾ തന്നെ ഇപ്പം മലയാളം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ഇംഗ്ളീഷ് വാക്ക് നമ്മുടേതിൽ കയറി വരുന്നുണ്ട് ഒരു പരിപൂര്ണ്ണമായ ഒരാൾ മലയാളം പറയണം എന്നുണ്ടെങ്കിൽ അത് കേട്ടിരിക്കുന്നവര്ക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഇപ്പം കേരളത്തിൽ തന്നെ ഒരു എഴുപത്തി അഞ്ച് ശതമാനം സ്കൂളുകളും ഇങ്ക്ളീഷ് മീഡിയം ആയിട്ടുണ്ടാകും ഗെവണ്മെന്റ് സ്കൂളുകളുകൾ ഒഴിച്ച് അല്ലാത്ത സ്കൂളുകൾ മുഴുവന് ഇങ്ക്ളീഷ് മീഡിയത്തിനാണ് പ്രധാന പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികള്ക്ക് ഇങ്ക്ളീഷ് ആണ് കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത് മലയാള ഭാഷയെ പൊതുവേ തരം താഴ്ത്തിയ രീതിയിലാണ് മലയാളം സംസാരിക്കുന്നവര്ക്ക് കല നമ്മൾ ഒരൂ സാംസ്കാരിക കലാകാരന്മാർ മാത്രം ഇപ്പം മലയാളം ഒരു പഴയ സഞ്ചിയൊക്കെ തൂക്കിയിട്ട് അങ്ങനത്തെ ആള്ക്കാർ ഇപ്പം പൂര്ണ്ണമായും മലയാളം സംസാരിക്കുന്നതായി കാണുകയുള്ളു ഇംഗ്ലീഷുകള് ഇങ്ക്ളീഷ് മീഡിയ സ്കൂളുകളാണ് കൂടുതൽ ഇപ്പം ഇങ്ങനെ വന്നു കൊണ്ടിരിക്കുന്നത് ഒരു എഴുപത്തി അഞ്ച് ശതമാനം വന്നു കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇങ്ക്ളീഷ് മീഡിയങ്ങളാണ് സീ ബീ എസ് ഇ എന്ന് പറഞ്ഞിട്ടൊക്കെ

നമ്മളെ ഉമ്മമാരും ഉമ്മൂമമാരൊക്കെ പറയുന്ന കേട്ടിട്ടാണ് കുട്ടികൾ മലയാളം പഠിക്കുന്നത് അല്ലാതെ മലയാള ഭാഷയെ ഒരാളും പഠിച്ചെടുക്കുന്നില്ല പൊതുവേ ഇങ്ക്ളീഷ് എഴുതുന്ന അത്രയും നാന്നായി മലയാളം എഴുതാനൊന്നും ഇപ്പോഴത്തെ ആള്ക്കാര്ക്ക് അറിയില്ല